ആ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പെൺകുട്ടികൾക്ക് സൈക്കിളോ ലാപ്ടോപ്പോ നൽകുന്നത് പോലുള്ള പദ്ധതികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിലവിലുണ്ട് അത്തരം പദ്ധതികൾ ഫലപ്രദമാണോ എന്ന് നമ്മൾ വില അന്വേഷിച്ച് വിലയിരുത്തേണ്ടിയിരിക്കുന്നു കാരണം വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും നമ്മളുടെ വിദ്യാർത്ഥികൾ അതെത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമ്മളുടെ ഭരണകൂടം അതിന് എത്രത്തോളം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് എപ്പോഴും നമ്മൾ അത് അതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ട അല്ലെങ്കിൽ അത് നമ്മൾ ബോധ്യമാകേണ്ട ഒരു കാര്യം കൂടിയാണ് കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങി കൊടുക്കുക ലാപ്ടോപ്പ് വാങ്ങി കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തുകൊടുക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിനാണ് ഇതിൻ്റെ സഹായം എപ്പോഴും ലഭിക്കുന്നത് പക്ഷെ സാമ്പത്തികമായി പിന്നോക്കം ലഭിക്കുന്ന ഒരു കുട്ടിക്ക് ഈ സഹായം എത്തിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ അവർ വളരെ സന്തോഷത്തിലായിരിക്കും ആ സന്തോഷംകൊണ്ടുതന്നെ അവർക്ക് പ്ര പഠിക്കുന്നതിനുള്ള പ്രചോദനം കൂടുകയും അവർ പഠിത്തത്തിൽ മുൻപന്തിയിൽ എത്തണമെന്നുള്ള ഒരു ഒരു ബോധമവർക്ക് ഉണ്ടാകുകയും ചെയ്യും ഇത് എല്ലാ കുട്ടികൾക്കും ബാധകം ആകണമെന്നില്ല എങ്കിൽ പോലും നമ്മളുടെ ഒരു ഒരു പകുതിയിൽ അധികം ശതമാനം വരുന്ന കുട്ടികളെയും ഇത് ന നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹനം നൽകും എങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കു നൽകുന്ന എല്ലാ സഹായങ്ങളും കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആരംഭ ശൂരത്വം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം അവർക്കത് അതിന് ഒരു റിപ്പെയറിങ് വന്നാലോ അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ അതിന് അതിന് ഒരു അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വന്നാലോ അത് പിന്നീട് ആ ഭാഗത്തോട്ട് എത്രമാത്രം അവർ അതിനെ ശ്രദ്ധിക്കുന്നു എന്നും ആ അതിലൂടി അവർക്ക് അതിൻ്റെ പാകപ്പിഴകൾ ശരിയാക്കി അവർക്ക് വീണ്ടും അത് ഉപയോഗപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുമുള്ളത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മള് എപ്പോഴും ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മള് എപ്പോഴും അത് നമ്മള് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നു നമ്മൾ അന്വേഷിച്ച് അറിയേണ്ടിയിരിക്കുന്നു നമ്മളുടെ ഭരണകൂടം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊടുക്കുമ്പോഴും അത് അവരുടെ അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള ഒരു വോട്ടിങ്ങിനുവേണ്ടി മാത്രമാണോ അതല്ല ജനങ്ങളിൽ കുട്ടികളിൽ അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് അത് എത്രത്തോളം പ്രയോജനപ്രദമാകും അതിന് ശേഷമുണ്ടാകുന്ന അതിനുശേഷം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്നുള്ളത് കൂടി നമ്മളുടെ ഭരണകൂടം അത് അത് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം എല്ലാ സഹായങ്ങളും ചെയ്തുകൊടുക്കേണ്ടത് എന്നുള്ള ഒരഭിപ്രായമാണ് എനിക്കുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്നു പറയുന്നത് നമ്മളുടെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ആൺകുട്ടികളെ ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെ ലിംഗ ഭേദമില്ലാതെ സമത്വം ആണ് അവർക്ക് ഊന്നല് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എങ്കിൽ പോലും പല സ്റ്റേ പല സ്റ്റേറ്റുകളിലും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട ഫ വിദ്യാഭ്യാസത്തിനു വേണ്ട സാഹചര്യങ്ങൾ വളരെ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നതും നമുക്ക് മനസിലാക്കാൻ കഴിയുന്നതും അങ്ങനെയുള്ള പ്രദേശങ്ങളും അല്ലെങ്കിൽ വണ്ടി സൗകര്യങ്ങളുമില്ലാത്ത കുഗ്രാമങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് സ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ യാത്രാ സഹായം അതിനായിട്ട് സൈക്കിൾ കൊടുക്കുന്നതുകൊണ്ട് വളരെ വളരെ ഉപയോഗപ്രദമായിട്ട് ആണ് ഉണ്ടാകാറുള്ളത് അതാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരു അജണ്ട കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്ക് വെക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇന്നത്തെ പെൺകുട്ടികളാണ് നാളത്തെ ഒരു തലമുറയുടെ നെ നെടുംതൂണായിട്ട് ആൺ കുട്ടികളോടൊപ്പം തന്നെ നിൽക്കേണ്ടത് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാലത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുവരുന്നത് അതുകൊണ്ടുതന്നെ നമ്മളുടെ പ്ര എല്ലാ മേഖലകളിലും സ്ത്രീയെൻ പേർക്കും പുരുഷന്മാർക്കും ഒരുപോലെയുള്ള അവസരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാം നല്ലതിനുവേണ്ടി ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ അറ്റകുറ്റ പിഴവുകളും തീർത്ത ഒരു നന്മയിലേക്ക് വേണം അത് കൊണ്ടെത്തിക്കേണ്ടത് എന്ന് ഫരണകൂടം എപ്പോഴും ആലോചിക്കേണ്ടതാണ്